ഹലോ ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോള് ബുക്ക് ചെയ്യാനാണ് ആ ചെയ്യാനാണ് ബുക്ക് ചെയ്യാനാണ് അപ്പോള് അതിന് എത്ര ക്യാഷ് വരും

ആ ന്യൂയോർക്കിൽ നിന്ന് ഏഥൻസിലേക്കുള്ളത് അതിൻ്റെ പേയ്മെൻറ്റും പിന്നെ ആ ഫ്ലൈറ്റ് ഏതാണ് നല്ല ഫ്ലൈറ്റ് ഉണ്ടാകില്ലെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഒന്ന് എനിക്കൊന്ന് പറയണമായിരുന്നു ആ ഞങ്ങൾ ഒരു മൂന്ന് നാല് പേരുണ്ടാകും നാല് പേരുണ്ട് നാല് പേർക്കുള്ള ടിക്കറ്റ് ചാർജും ഇൻക്ലൂഡഡായ കാര്യങ്ങളുമൊക്കെ ഒന്ന് എനിക്കറിയണമായിരുന്നു അതിനാണ് ഞാൻ വിളിച്ചത് ഏകദേശമൊരു എമൗണ്ട് പറയാൻ പറ്റില്ലെ ഇപ്പം നാല്പ്പത്തിയൊമ്പതല്ലേ വൺ പേഴ്സന് നാല്പ്പത്തിയൊമ്പതല്ലേ ഓക്കെ ഓക്കെ ഇത് എങ്ങനെ മൊത്തത്തില് വരുന്നതല്ലേ ആ ഇത് ബുക്ക് ചെയ്തുകഴിഞ്ഞാല് എനിക്ക് എത്ര ദിവസങ്ങളിലാണ് കിട്ടുന്നത് ഇന്ന് ചെയ്താല് നാളെ കിട്ടുമെന്നാണോ ഓക്കെ ഫ്ലൈറ്റ് ഡിലേ ഒന്നുമുണ്ടാകില്ലല്ലോ വേറെ സീനൊന്നുമില്ലല്ലോ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ